ഒരു വീടിൻ്റെ ആവശ്യമായിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ എന്നെ ഓരോ പേപ്പറുകൾ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഒരുപാടിട്ട് നടത്തിച്ചു എല്ലാം റെഡി ആക്കി കൊടുത്തുകഴിഞ്ഞപ്പോൾ വീടിന് അനുവദിച്ച് അതിൻ്റെ ബേസ്മെൻറ് കെട്ടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ചെക്കിൻ്റെ ആവശ്യമായിട്ട് പഞ്ചായത്തിൽ ചെന്നപ്പോൾ ആ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസർ എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു അപ്പം അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അയാൾ എൻ്റെ ഫയൽ മാറ്റി വെച്ച് എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കി ഇതാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്